എനിക്ക് ഒരു ബർത്ത്ഡേ പാർട്ടിയുണ്ട് അതിനുവേണ്ടി കുറച്ച് ഫുഡ് വേണമായിരുന്നേ ഒരു അഞ്ച് പായ്ക്കറ്റ് നൂഡിൽസ് വേണം വെജ് നൂഡിൽസും അഞ്ച് പായ്ക്കറ്റ് വെജിറ്റബിൾ അല്ല ചിക്കൻ ഫ്രൈഡ് റൈസ് പിന്നേ ഒരു പത്ത് പേർക്ക് കൊടുക്കാൻ പറ്റുന്ന കുഴിമന്തി വേണം പിന്നേ പെറോട്ടായും ചിക്കനും ചിക്കൻ സിക്സ്റ്റീ ഫൈവോ ചിക്കൻ ഫ്രൈയ് അങ്ങനൊരു പത്ത് മുപ്പതുപേർക്കുള്ള ഫുഡിൻ്റെ ഓർഡറാണിത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് വേണമായിരുന്നു അത് നിങ്ങളെങ്ങനാ ഇങ്ങോട്ട് കൊണ്ടെത്തിക്കും എങ്ങനാ അതിൻ്റെ കാര്യങ്ങളെന്ന് അറിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ ഒന്ന് പറയണം ഇത്രയും വലിയൊരു ഓർഡര് തരുമ്പോള് എന്തേലും ഡിസ്കൗണ്ടൊക്കെ നിങ്ങള് ചെയ്യുമായിരിക്കുമല്ലോ അതിനെക്കുറിച്ചും ഒന്ന് അറിയണമായിരുന്നു എനിക്ക് ഇത്രയും സാധനങ്ങള് പത്ത് മുപ്പത് പേർക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഓർഡര് ചെയ്യുന്നത് അതിനകത്ത് ചിക്കൻ ഫ്രൈ വേണം ചിക്കൻ സിക്സ്റ്റീ ഫൈവ് വേണം പിന്നേ ഈ നൂഡിൽസ് ഫ്രൈഡ് റൈസ് കുഴിമന്തി പിന്നെ അങ്ങനെ പെറോട്ടയും ബീഫ് ഫ്രൈയും അങ്ങനുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് അതായത് പിന്നെ സൈഡ് ഇതായിട്ട് ഐസ് ക്രീമോ അങ്ങനെന്തേലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എനിക്ക് വേണം ഒരു മുപ്പത് പേർക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ള സാധനങ്ങളാണ് എനിക്ക് ആവശ്യം അത് ഇത്രയും സാധനങ്ങളെടുക്കുമ്പോള് നിങ്ങളെന്തേലും അതിനകത്ത് ക്യാഷിനകത്ത് ഡിസ്കൗണ്ട് ചെയ്യുവോ അല്ലെങ്കില് എന്തേലും കൂപ്പണോ അങ്ങനെന്തേലുമുണ്ടെങ്കില് അതും എനിക്ക് ചെയ്ത് തരണം ഞാൻ ഇത്രയും വലിയൊരു ഓർഡറാണ് നിങ്ങള്ക്ക് തരുന്നത് കാരണം പുറത്ത് നമുക്ക് കാറ്ററിംഗുകാരെ ഏൽപിക്കാവുന്നതാണ് പക്ഷെ അതല്ല നിങ്ങൾക്കാണ് ഞാനിന്ന് ഈ ഓർഡര് തരുന്നത് അതുകൊണ്ട് നിങ്ങളതിനാത്ത് എനിക്കെന്തേലും കൺസഷനൊക്കെ ചെയ്ത് തരുക